കുഞ്ഞു മോളെ കുഞ്ഞു മോള്ക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരത്തിന്റെ പേര് പറയുകയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊള്ളത് ഒന്നു വിവരിക്കാമോ എനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കപ്പയും മീനും ആണ് കപ്പ വേവിക്കുന്നത് കപ്പ ആദ്യമേ വേവിക്കാന് കുക്കറിൽ വയ്ക്കും

പച്ചമുളകും ഒക്കെ ഇട്ട് ഒന്ന് മിക്സിക്ക് അകത്തിട്ട് ചെറിയ രീതിയിൽ അടിച്ചെടുത്തിട്ട് കപ്പക്ക് അകത്ത് അത് കുഴച്ച് വച്ചിട്ട് കടുക് വറുത്തെടുക്കും പിന്നെ മീന് മേടിച്ചിട്ട് ആ മീന് എടുത്ത് വെട്ടി തേച്ച് കഴുകി കഴുകി വൃത്തിയായിട്ട് വെച്ചിട്ട് ആദ്യമേ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചായിച്ച് എടുത്തിട്ട് അത് ചട്ടി അടുപ്പിൽ വച്ചിട്ട് അതിനകത്തോട്ട് ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വച്ചിരിക്കുന്ന അത് ഇട്ട് അതിൻ്റെടുത്ത് ശകലം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ മൂത്ത് കഴിയുമ്പോൾ ശകലം വെള്ളം ഒഴിച്ച് തിളച്ചു കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് മീനും പെറുക്കിയിട്ട് തിളച്ച് ഒരു മാതിരി തിളച്ച് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റൌവ് കുറച്ചു വച്ചിട്ട് അത് വറ്റി എന്ന് ഉറപ്പായി കറിയുടെ മണമൊക്കെ വരുമ്പോൾ അത് ഓഫാക്കും